ഹലോ സാറെ ഇത് എന്തൊരു കഷ്ട്ടമാണ് മറ്റേ ഞാൻ ഇന്ന് വന്ന ഒരു ബസ്സിലെ ഡ്രൈവറ് ആള്ക്ക് കോവിഡ് ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കരമായ ജലദോഷവും ഡ ഡ്രൈവിങിനിടയിൽ ഉള്ള തുമ്മലും ചുമയും അടുത്തുള്ള ആളുകളെ ഒക്കെ ഒരുമാതിരി ശല്യം ചെയ്യുന്ന രൂപത്തിലായിരുന്നു ഇങ്ങനുള്ളവറെയൊക്കെ ലീവ് ലീവെടുക്കാൻ പ്രേരിപ്പിച്ചൂടെ യാത്ര വരുന്ന യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ത് കൊണ്ടാണ് വളരെ സങ്കടമുണ്ട് അപ്പോൾ നിങ്ങള് ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അന്വേഷിക്കണം

സാറെ അതുപറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ വിളിച്ചത് ഓക്കെ നന്ദി